മത്സ്യക്കൃഷിക്ക് ഞങ്ങളിവിടെ നേട് ഞങ്ങളെ ഈ ഉള്ഗ്രാമങ്ങളില് നേരിടുന്ന പ്രധാന വിഷയം വെള്ളപ്പൊക്കവാണ് എനിക്ക് ഉള്നാടന് ജലാഷ് ആ മത്സ്യക്കൃഷി ഉണ്ടായിരുന്നു പടുതാക്കുളം ത്തില് കൃഷി ഉണ്ടായിരുന്നു ഞാന് കുറെ പൈസ മുടക്കി മത്സ്യക്കൃഷി ചെയ്തു അത് കഴിഞ്ഞ് വര്ഷം അതിന് മുമ്പിലത്തെ വർഷങ്ങളും രണ്ട് മൂന്ന് വർഷവായിട്ട് വെള്ളം കേറി മുഴുവന് മത്സ്യ കുഞ്ഞുങ്ങളും മത്സ്യം വലിയ മത്സ്യങ്ങളും കുഞ്ഞ്ങ്ങളും എല്ലാം പോയി അപ്പോൾ ഞാനത് ഇതാണ് ഏറ്റവും ഞങ്ങള്ട്ന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നെ സംബന്ധിച്ച് വെള്ളപ്പൊക്കവാണ് മഴക്കാലത്ത് ഞങ്ങളെ ഈ ജില്ലയില് നിന്ന് ഈ ഉരുള് പൊട്ടി ഒക്കെ മണിമലയാറ് നിറഞ്ഞ് കവിഞ്ഞ് നമ്മുടെ പടുതാക്കുളങ്ങളെല്ലാം നിറച്ച് മുങ്ങി മത്സ്യങ്ങളങ്ങ് പോ അപ്രതീഷിതമായിട്ടായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നെ അതാണ് നമ്മള് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നം അത്പോലെതന്നെ ഈ തോടുകള് സംരഷിക്കാന് സര്ക്കാരിന്റെ ആ അടിയന്തരമായ നടപടി ഉണ്ടാവണം തോടുകള് സംരഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്തുള്ള മലിനമായ വസ്തുക്കളും വേസ്റ്റുകളും കക്കൂസ് മാലിന്യങ്ങളും എല്ലാം നമ്മുടെ ഈ നല്ല ശുദ്ധമായ തോടുകളില് ഉള്നാടന് തോടുകളിലേക്ക് വലിച്ചെറിഞ്ഞ് തോടുകളെ മലിനമാക്കുകയാണ് ആറുകള് ആറ്റില്പോ കുളിക്കാനോ ഒന്നും പറ്റില്ല മൊത്തം കുപ്പി വേസ്റ്റ് പ്ലാസ്റ്റിക്ക് ഇങ്ങനെയുള്ള വസ്തുക്കള് വന്നടിഞ്ഞുകൂടി തോടുകളുടെയും ചെറിയറിയ അരുവികളുടെയും തോടുകളുടെയും നദികളുടെയും ഒക്കെ ആഴം കുറഞ്ഞ് മണലും മണ്ണും വേസ്റ്റും എല്ലാം അടിഞ്ഞ് ആഴം കുറഞ്ഞിട്ടാണ് ഈ വെള്ളം പൊങ്ങി എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനൊരു സംഭവമേ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങളുടെ പത്തനന്തിട്ട ജില്ലയിൽ നിന്ന് പറഞ്ഞുകഴിഞ്ഞ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഗ്രാമത്തില് വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടും വെള്ളം പൊങ്ങി ഒന്നും ഉണ്ടായിട്ടില്ല ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എല്ലാ വര്ഷവും നമ്മുടെ വീടുകള് മുഴുവന് വെള്ളം അതും ഞങ്ങ മലയോര പ്രദേശത്ത് വരെ ഇതാ സംഭവിക്കുന്നെ കുട്ടനാടല്ല മലയോര പ്രദേശവായ പത്തനന്തിട്ട ജില്ലേലാണ് ഈ സംഭവം നടക്കുന്നെ അത് മത്സ്യ കൃഷിക്കും ഇവിടെല്ലാം ഒരുമാതിരിപെട്ട എല്ലാ ആള്ക്കാര്ക്കും പടുത കുളങ്ങള് അങ്ങനെയുള്ള മത്സ്യ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ഉപേഷിച്ച് പോവുകയാണ് നമുക്ക് അത് ചെയ്യാന് പറ്റാത്തെയൊരു അവസ്ഥയാണ് വരുന്നത് ഞാന് തന്നെ കഴിഞ്ഞ വര്ഷം കഴിഞ്ഞേന്റെ മുമ്പിലത്തെ വര്ഷം ഏതാണ്ട് പത്ത് പതിനായിരം രൂപാടെ ഗൗരാ എന്ന പറയുന്ന മീനെ മത്സ്യത്തെ മേടിച്ച് ഒരു മത്സ്യക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ വില കൊടുത്ത് നല്ല മേടിച്ചതാണ് മൊത്തം വെള്ളം പൊങ്ങി പോയി അതോടെ ഞാന് മത്സ്യക്കൃഷി വരെ അതേറ്റവും വരുന്ന വെല്ലുവിളി ഇതാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തോടുകളും അത് ക്ലീന് ചെയ്യാന് വൃത്തിയാക്കി ഇടാനും അതിന്റെ ആഴം കൂട്ടാനും സര്ക്കാര് തലങ്ങളിലുള്ള ഇടപെടലുകള് ഉണ്ടാവണം ഇതാണ് നമുക്കറിയാൻ പറയാന് ഉള്ളത് അല്ലാതെ നമ്മൾ ഈ മത്സ്യക്കൃഷി ഉള്നാട്ടില് ഇപ്പം ഒരുപാട് ചെറുപ്പക്കാര് ഉള്നാടുകളില് മത്സ്യക്കൃഷി നടത്തുന്നുണ്ട് അവര് ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വെള്ളവാണ് വെള്ളം പൊങ്ങി കൃഷി പോവുകയാണ് അതുപോലെതന്നെ ഈ തോട്ടില് തോടുകളിൽ ഉള്ള നല്ല വെള്ളം പടുതാക്കുളത്തിലേക്ക് മോട്ടർ വെച്ച് അടിക്കാൻ ഒന്നും പറ്റുന്നില്ല തോട്ടിലെ വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മത്സ്യം ചത്തു പോകുകയാണ് അതാണ് ഏറ്റവും നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് തോട്ടിൽ നിന്ന് അങ്ങോട്ട് മോട്ടർ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ കിട്ടുന്നില്ല ആ അതുപോലെ മലിനമായ ജലമാണ് ഇപ്പോൾ തോടുകളിലും ആറുകളിലും ഉള്ളത് നല്ല ഇതൊക്കെയാണ് മത്സ്യബന്ധനവുമായി ഞങ്ങൾ പാരസ്ഥിതികമായി ഉണ്ടാകുന്ന ഞങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ